ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ ബുക്സ് ഒന്നും വായിക്കാറില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പതിനൊന്ന് വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ഒരു നോവല് വായിക്കുന്നത് അത് ജോൺ ഗ്രീൻ്റെ ഫോൾട്ട് ഇനെ സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ആയിരുന്നു ആ ബുക്ക് വായിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഹാരിപ്പോട്ടറിൻ്റെ ബുക്ക്സും അതുമൊക്കെ വായിക്കാൻ തുടങ്ങി ഹാരിപ്പോട്ടറിൻ്റെ ബുക്ക്സാണെന്ന് തോന്നുന്നു എന്നെ ഒരുപാട് ബുക്ക് വായിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് വന്നത് പിന്നെ അല്ലാതെ തന്നെ ഹാലിദുസീനീടെ ദ കൈറ്റ് റണ്ണർ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എല്ലാ ബുക്സും വായിക്കാറുണ്ട് ഫാന്റസി ആയാലും ഫിക്ഷനായാലും നോൺ ഫിക്ഷൻ ആയാലും എനിക്ക് വളരെ ഇഷ്ടമാണ് അബ്ദുൾ കലാമിൻ്റെ ദ വിങ്സ് ഓഫ് ഫയറും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ബുക്കാണ് ബുക്സാണ് ജോ പിന്നെ തോമസ് ആർ ഡി ചാൾസ്സ് ഡിക്കിങ്ങ്സ് പിന്നെ ഷാർലെറ്റ് ബ്രോണ്ടെ ബ്രോണ്ടെ സിസ്റ്റേഴ്സിന്റെ എല്ലാ ബുക്സും എനിക്ക് ഇഷ്ടമാണ്